ഹലോ മാം എന്ത് ഹലോ കേൾക്കുന്നില്ലേ ഓക്കെ പറയൂ മാം ഓക്കെ ഓക്കെ മാം നമ്മുടെ അടുത്ത് മൂന്നാലഞ്ച് പാക്കേജുകളുണ്ട് മൂന്ന് ദിവസത്തെ പാക്കേജുകളാണെങ്കിൽ ഓൾ വയനാട് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിപ്പോൾ ഏഴ് ദിവസത്തേക്ക് ആ ഇരുപത്തയ്യായിരം രൂപ അപ്പം നമ്മൾ പാക്കേജ് എടുത്തിട്ട് വരികയാണെങ്കിൽ എത്ര പേരുണ്ടാവും മാം വെരുമ്പം ഓക്കെ അപ്പോൾ പത്ത് പേരാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടും കേട്ടോ മൂന്ന് പേരുടെ പാക്കേജ് മൂന്ന് അഞ്ച് പേരൊക്കെയാണെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ വേണം കാരണം റൂമ് നമുക്ക് കൂടുതൽ വേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്ക് ഇവിടെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എന്നൂരുണ്ട് കാണാൻ നമുക്ക് വ്യൂ പോയിൻ്റ് ലക്കിടി വ്യൂ പോയിൻ്റിൽ നമുക്കവിടെ സ്റ്റേ ചെയ്തിട്ട് എന്നൂർ പൂക്കോട് അവിടെ ഒരു രണ്ടു ദിവസം ആ രണ്ട് സ്ഥലം ഒരു ദിവസം തന്നെ കാണാം ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരിതാണ് കാരണം കാമാണ് കുറച്ച് മഴയുണ്ട് പറ്റുന്ന സ്ഥലങ്ങളാണ് അവിടെയൊരു ലെയ്ക്കൊക്കെയുണ്ട് തടാകമൊക്കെയുണ്ട് പിന്നെ നമുക്ക് കാണാം പിന്നെ ട്രക്കിങ്ങ് നടത്താനാണ് ഉണ്ടെങ്കിൽ നമുക്ക് തൊള്ളായിരം കണ്ടി ഉണ്ട് ഹൃദയ തടാകം ഉണ്ട് അവിടെ രണ്ടിലും നമുക്ക് ട്രക്കിങ്ങ് നടത്താൻ പറ്റിയ സ്ഥലമാണ് ഈ അറ്റ്മോസ്ഫിയറിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പം കുറുമ്പാലക്കോട്ട കുറുമ്പാലക്കോട്ടയും പോവാം കേട്ടോ അവിടെ കൂടുതൽ നമ്മൾ പോകുന്നത് ഈ തണുപ്പ് കാലത്താണ് മഞ്ഞൊക്കെ ആവുമ്പോഴാണ് അവിടെ വ്യൂ പോയിൻ്റാണ് സൂപ്പറായിരിക്കും പിന്നെ നമുക്ക് കാരാപ്പുഴയിൽ പോകുന്നത് കുഴപ്പമില്ല പടിഞ്ഞാറേത്തറ കുഴപ്പമില്ല പിന്നെ കുറുവാ ദ്വീപ് പിന്നെ മീൻമുട്ടി അവിടെ ഇപ്പം മഴ കാരണം ഒന്ന് അടച്ചിട്ടിരിക്കുകയാണ് മഴയാണല്ലോ ഇപ്പം അപ്പം അവിടെ രണ്ട് സ്ഥലം ഇപ്പം തുറക്കാൻ ചാൻസുണ്ട് നിങ്ങൾ വരുന്നതെന്നാണ് അടുത്ത മാസത്തേക്കൊക്കെ ആണെങ്കിൽ ഏകദേശം തുറക്കും ആ അടുത്ത മാസം ഒരു ഈയൊരാഴ്ച്ച കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽത്തന്നെ മഴ കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറക്കും അവിടെ പിന്നെ അപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ല ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഒത്തിരി മഴ മഴയുള്ളതുകൊണ്ടാണ് അവിടെ രണ്ട് സ്ഥലത്തും അടച്ചിട്ടിരിക്കുന്നത് കുറുവ ദ്വീപൊക്കെ അപ്പം നമുക്ക് വേഗം തുറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച്ചയൊക്കെ ആകുമ്പം തുറക്കും പിന്നെ അവിടെയും കൂടി അങ്ങ് കവറ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോൾ വയനാടാകും ബാക്കി വലിയ കുഴപ്പമൊന്നും ഇല്ല അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എല്ലായിടത്തും പോവാം നമ്മൾ തന്നെ പിന്നെ ഗൈഡ് വരും കൂടെ വണ്ടിയുണ്ടാവും വണ്ടി അറേജ്മെൻ്റ്സ് പിന്നെ ലക്കിടിയിലവിടെ റിസോർട്ടുണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ മേപ്പാടി റിസോർട്ടുണ്ട് മാനന്തവാടിയൊക്കെ ആണെങ്കിൽ പനമരം ഭാഗത്ത് റിസോർട്ടുണ്ട് നമുക്ക് മൂന്ന് ദിവസം വേറെ വേറെ സ്ഥലത്ത് സ്റ്റേ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഓക്കെ ഓക്കെ അങ്ങനെ ഏഴ് ദിവസം ആണെങ്കിൽ വിളിച്ചാൽ മതി മാം വിളിച്ചാൽ മതി ഞങ്ങൾ അതിനുള്ള അറേഞ്ച്മെൻ്റ്സൊക്കെ ചെയ്തു തരാം വരുന്നതിൻ്റെ ഒരു നാലു ദിവസം മുമ്പ് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അതിനുള്ള അറേഞ്ച്മെൻ്റ്സൊക്കെ ഞങ്ങൾ ചെയ്തുകൊളളാം കേട്ടോ ഓക്കെ താങ്ക് യൂ